ആ എന്താണ് മേഡം വേണ്ടത് ആ എത്രേൻ്റെയാണ് വേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അങ്ങനെ ഉള്ള റേഞ്ചൊക്കെ ഉള്ളത് ഉണ്ട് ഏതാണ് വേണ്ടതെന്ന് പറയുമോ

അതിന് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഉണ്ട് ആ റേറ്റിലുള്ളതും ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ബ്ലൂവ് പിന്നെ അല്ലാതെ തന്നെ സെയിം സാധനം ബ്ലാക്ക് ഇല്ലേ വൈറ്റും ബ്ലാക്കൊക്കെയുള്ള

ആ ഓക്കെ ഓക്കെ വേറെ എന്തെങ്കിലും ജീൻസിൻ്റെ എന്നു വച്ചാൽ പാൻ്റിനൊക്കെ മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് ആ ആ റേഞ്ചൊക്ക വരും അതിനൊക്കെ ഒരു അറുനീറ്റി അമ്പത് അറുന്നൂറ് ഒക്കെ വരും ആ റേറ്റൊക്കെ പിന്നേ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ഏത് വേണമെങ്കിലും പറഞ്ഞോളൂ

ആ ഉണ്ടല്ലോ ഹാഫ് ഉണ്ട് നമ്മുടെ ഹാഫ് ഷർട്ട് ഉണ്ട് അല്ലാതെ തന്നെ ഫുൾ ആയിട്ടുള്ളത് അതിനൊക്കെ റേറ്റ് ഇത് പോലെ തന്നെ ഇരുനൂറ്റി തൊണൂറ്റി ഒമ്പത് രൂപ ആ ഒരു റേറ്റ് ലൊക്കേഷൻ മുരിക്കാശ്ശേരിയിലെ ബസ് സ്റ്റാൻ്റ് ഇല്ലേ അവിടെ സ്റ്റാൻ്റിൻ്റെ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് മാറിയിട്ട് ആണെ

വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ

സാരിയാണ് നിങ്ങൾക്ക് എന്നാ എന്നാ സാരിയാണ് വേണ്ടത് ഹാഫ് സാരിയാണോ മറ്റേ സാധാ ആ ഏത് നിറമാണ് വേണ്ടത് ബ്ലാക്ക് അല്ലേ ആ എത്ര എണ്ണം വേണം ഓക്കെ ഓക്കെ

അതിൻ്റെ റേറ്റ് അറുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് അത്രയൊക്കെ ആവും കേട്ടോ ആ റേറ്റ് നിങ്ങൾക്ക് വേണോ